ഒരു കുഞ്ഞുണ്ടായാൽ ആദ്യമേ തന്നെ പൊന്നും തേനും കൊടുക്കുന്ന ഒരു പതിവുണ്ട് അത് എല്ലാവരും തന്നെ ചെയ്യാറുണ്ട് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവര് മാമോദിസ മുക്കും ഈ ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഇരുപത്തെട്ടിന്റെ അന്ന് നൂലുകെട്ടും കഴിഞ്ഞ് മാമോദിസയും മുക്കിയിട്ട് പിന്നെ നൂലുകെട്ടും നടത്താറുണ്ട് മാമോദിസയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആദ്യവർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു ആചാരപ്രകാരമാണെങ്കില് അവർക്ക് നൂലുകെട്ടാണ് ഇരുപത്തെട്ട് അത് അവര് പേരിടുന്നതും അന്നാണ് ക്രിസ്ത്യാനികളും മാമോദിസായ്ക്കാണ് പേര് നിർദ്ദേശിക്കുന്നത് പിന്നെ മുസ്ലിം മുസ്ലിംസ് സമുദായത്തിൽ മുസ്ലീങ്ങൾ നാൽപ്പതിൻ്റെ അന്ന് അതുവരെ അവര് പുറത്തിറങ്ങത്തില്ല നാൽപ്പതിൻ്റെ അന്ന് കൊച്ചിൻ്റെ തലമുടിയൊക്കെ മൊട്ടയടിച്ച് അമ്മയെയും കുളിപ്പിച്ച് ഇപ്പം നാൽപ്പത് കുളിപ്പിക്കുക എന്ന് അവര് പറയുന്നത് അങ്ങനെയുള്ള ആചാരങ്ങൾ ഒക്കെയാണ് ചെയ്യുന്നത് ഇപ്പം ഓരോ സ്ഥലത്തും ഓരോ ദേശത്തും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ഓരോ നാട്ടിലും

പിന്നെ ഈ നാൽപ്പത് കുളിപ്പിക്കുന്നു കൊച്ചിൻ്റെ മൊട്ടയടിച്ച് കുളിപ്പിക്കുന്നത് എല്ലാം എല്ലാ നാട്ടിലും പൊതുവായുള്ള കാര്യങ്ങളാണ് അത് ക്രിസ്ത്യാനികൾക്ക് മാമോദിസ ഹിന്ദുക്കൾക്ക് ഇരുപത്തിയെട്ട് കേട്ട് മുസ്ലിങ്ങൾക്ക് പിന്നെ എന്താണ് നാല്പ്പത് കുളിപ്പിക്കുന്നത് മൊട്ടയടിച്ച് നാല്പ്പത് കുളിപ്പിക്കുന്നത് പിന്നെ ആറുമാസം ആകുമ്പോൾ ചോറു കൊടുക്കുന്ന പരിപാടി ഉണ്ട് ഹിന്ദുക്കളും മുസ്ലീങ്ങളും ഒക്കെ അവർ അമ്പലങ്ങളിൽ കൊണ്ടുപോയി ഹിന്ദുക്കള് ചോറൂട്ടാൻ കൊണ്ടുപോകും ആദ്യവർഷം തന്നെയാണ് ആറാം മാസം കുഞ്ഞിനെ ചോറൂട്ടാൻ കൊണ്ടുപോകും മുസ്ലിങ്ങളും ഉണ്ട് ചോറു കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കാത് കുത്തുന്ന പെൺകുഞ്ഞുങ്ങൾ ആണെങ്കിൽ കാത് കുത്തുന്ന ഇതുണ്ട് ആദ്യ വർഷങ്ങളിൽ തന്നെ ഇതെല്ലാം ഓരോ ആചാരമായിട്ടാണ് ചെയ്യുന്നത്